എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫാൻ ആണ് ഫാൻ പറഞ്ഞുകഴിഞ്ഞാൽ രണ്ടുതരം ഫാനുകളാണ് ഉള്ളത് അപ്പോൾ അതിൽ സീലിങ് ഫാൻ ടേബിൾ ഫാൻ പിന്നെ നമ്മൾ ഭിത്തിയിൽ വയ്ക്കുന്ന ഫാൻ അങ്ങനത്തെ മൂന്ന് ഫാൻ ഉണ്ട് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഫാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാം ഏകദേശം ഉപകാരപ്രദമായിട്ട് ഉണ്ട് സീലിംങ് ഫാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് കാറ്റ് കിട്ടും അപ്പോൾ മൊത്തത്തിൽ കാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൂമിൽ എല്ലാ സ്ഥലത്തേക്കും കാറ്റ് കിട്ടുന്നതായിരിക്കും മറ്റേതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് മാത്രമേ നമുക്ക് കാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ റൊട്ടേഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ കാറ്റ് കിട്ടും അപ്പോൾ നമുക്ക് ഒരു നയൻറ്റി ഡിഗ്രി ആ ടൈമിൽ മാത്രമേ നമുക്ക് കാറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അത് ഒന്നാമത്തെ കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മറ്റേ സീലിംങ് ഫാനിൻ്റെ നെഗറ്റീവ് നമുക്ക് നേരിട്ട് കാറ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്ക് അലർജി കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അതൊരു വലിയ പ്രശ്ണമായിട്ട് എനിക്ക് തോന്നി പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റേത് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഭയങ്കര ഉപയോഗമാണ് സീലിംങ് ഫാൻ നമുക്ക് എടുത്തുകൊണ്ട് പോകാനോ വേറൊരു റൂമിലേക്ക് മാറ്റികൊണ്ടുവയ്ക്കാനോ അങ്ങനെത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല